ഹലോ തായ് മസ്സാജ് സെൻറ്റർ ആൽവിൻ സ്പീക്കിങ് അതെ മസ്സാജ് സെൻറ്ററാണ് അതെ അതെ പറയാം പറയാം ഇവിടെ തായി മസ്സാജുണ്ട് സോഷിയൊ മസ്സാജുണ്ട് ഈസ്റ്റെ മസ്സാജുണ്ട് അങ്ങനെ പലതരം മസ്സേജുകളുണ്ട് എത്രയാണ് ബഡ്ജറ്റെന്നു പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്രെഫർ ചെയ്യാം പിന്നെ കപ്പിൾസിനാണെങ്കിൽ വേറെ ഓഫേഴ്സുണ്ട് ബഡ്ജറ്റ് പാക്കേജായിട്ടു തരാം ഫാമിലിയിൽ എത്ര മെമ്പറുണ്ട് അഞ്ച് പേരുണ്ട് ഓക്കെ ഓക്കെ ഓക്കെ അഞ്ച് പേർക്കാണെങ്കിൽ എത്ര ദിവസത്തെ ചികിത്സ ആവശ്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ഒരു മാസമല്ലേ അപ്പം ഒരു അഞ്ച് പേരെന്ന് പറയുമ്പോൾ പെർ ഡെ വരുന്നത് എറൗണ്ട് സിക്സ് തൗസണ്ട് ഫൈവ് ഹൺഡ്രഡാണ് പക്ഷേ ഇപ്പം ഇപ്പം ഓണം പ്രമാണിച്ച് കുറച്ച് ഓഫേഴ്സ്ഡ് അതുകൊണ്ട് ഫോർ ത്രിപ്പിൾ നെയൺ അതെ സ്റ്റേ ഇൻക്ലൂഡ്ഡ് പെർ ഡേ പെർ ഡെ ഫോർ ട്രിപ്പിൾ നെയൺ അല്ലെങ്കിൽ പെർ ഡെ സിക്സ് തൗസൻറ്റ് ഫൈവ് ഹൺഡ്രഡ് വരുന്നത് ഇപ്പം ഓണം പ്രമാണിച്ച് അതും ഇന്ന് ബുക്ക് ചെയ്യുവാണെങ്കിൽ മാത്രട്ടൊ ഇന്ന് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഫോർ ട്രിപ്പിൾ നെയൺ ഇല്ല ഇന്ന് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഫോർ ട്രിപ്പിൾ നെയൺ അല്ലെങ്കിൽ സിക്സ് തൗസൻറ്റ് ഫൈവ് ഹൺഡ്രഡ് പെർ ഡേ വരും ഇപ്പം ഒത്തിരി ഒത്തിരി ഓഫേഴ്സുണ്ട് പിന്നെ അതിൽ കൂടെത്തന്നെ മോർണിംഗ് ഫുഡ് ഫ്രീയാണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരില്ല പിന്നെ നിങ്ങൾക്കുള്ള കാബ് അറേഞ്ച് ചെയ്തുതരും ഫ്രം സ്റ്റേഷൻ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കാബ് അറേഞ്ച് ചെയ്തുതരും എന്തെങ്കിലും അഡീഷനൽ ഇൻഫർമേഷൻസ് അറിയാനുണ്ടോ വിളിച്ചാൽ മതി സർ ഓക്കെ ഷുവർ സാർ കോൺടാക്ററ് ചെയ്താൽ മതി എപ്പോഴാണെങ്കിലും കോൺടാക്ററ് ചെയ്താൽ മതി ഓക്കെ